എൻ്റെ പ്രിയപ്പെട്ട പത്രം എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലും പതിവായി വരുന്നത് മലയാള മനോരമയാണ് ഞങ്ങൾ വർഷങ്ങളായി അതാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം മലയാള മനോരമയിലാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൃത്യമായി വരുന്നത് കൂടാതെ മലയാള മനോരമയിൽ ഒരുപാട് വിദ്യാഭ്യാസ തര കാര്യങ്ങളാണെങ്കിലും ജോലി സാധ്യതകളുള്ളതാണെങ്കിലും ഒരുപാട് അറിവ് പകർന്ന് തരുന്ന ഒരു പത്രം കൂടിയാണ് മലയാള മനോരമ മലയാള മനോരമയിൽ ഒരുപാട് പഠിക്കുന്ന കാര്യങ്ങൾ വരാറുണ്ട് അതായത് പഠിപ്പുരപ്പോലെയുള്ള ചില ഇപ്പ പേജുകൾ ഉണ്ട് അതിൽ ഒരുപാട് ഇപ്പോൾ പത്താം ക്ലാസ് ആയാലും പ്ലസ്ടുൻ്റെ ആയാലും എല്ലാത്തര വിവരങ്ങളും ആ പഠിപ്പുരയിൽ വരാറുണ്ട് കൂടാതെ അതിൽ ജോലി സംബന്ധമായ എല്ലാ അറിവുകളും എല്ലാം അതിലാണ് കൂടാതെ നമ്മൾ ദൈനംദിന ആ ആവശ്യത്തിന് പ്രധാന ഘടകമാണ് നമ്മൾടെ പത്രം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഞങ്ങൾ മലയാള മനോരമയാണ് ഉപയോഗിക്കുന്നതും മലയാള മനോരമയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ വർഷങ്ങളായി അതുതന്നെയാണ് ഉപയോഗിക്കുന്നതും മലയാള മനോരമയ്ക്ക് വെറും നാല് രൂപയേ ഉള്ളു ദിവസം ന നല്ല ഒരു പത്രമാണ് എല്ലാ കാര്യങ്ങളും ലോകത്ത് നടക്കുന്നതായാലും കേരളത്തിൽ നടക്കുന്നതായാലും ഇന്ത്യയിൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല വളരെ കൃത്യമായും സത്യസന്ധതയോട് കൂടിയുമാണ് അതിൽ പറയുന്നത് അതുകൊണ്ട്തന്നെ മലയാള മനോരമ എന്ന് പറയുന്നത് എൻ്റെ എപ്പഴത്തേയും ഏത് കാലത്തേയും പ്രിയപ്പെട്ട ഒരു പത്രം കൂടിയാണ്